എനിക്കിപ്പോൾ സഹോദരങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു അനിയത്തിയാണുള്ളത് അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള സാമ്യതകളും വ്യത്യസ്തകളും എന്തൊക്കെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ആൺകുട്ടിയാണ് എനിക്ക് ഉള്ളത് ഒരു അനിയത്തിയാണ് അപ്പോൾ അതു തന്നെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം പിന്നെ ഞങ്ങളുടെ സ്വഭാവത്തിലെന്ന് പറയുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം ഞാനും അവളും ഒരിക്കലും ചേരില്ല ഞങ്ങൾ തമ്മിൽ ഭയങ്കര എന്താ പറയുക ചേരില്ലയെന്നല്ല ഞങ്ങൾ അങ്ങോട്ടും മിങ്ങോട്ടും എപ്പോൾ കണ്ടു കഴിഞ്ഞാലും കച്ചറ തന്നെയാണ് അപ്പം അങ്ങനെയൊരു പ്രശ്നമേ ഞങ്ങൾ തമ്മിലുള്ള വീട്ടുകാരും ഇടയ്ക്കിടയ്ക്ക് പറയും കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരും കീരിയും പാമ്പുമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നതു കേൾക്കാം പിന്നെ ഞാനും അവളും തമ്മിലുള്ള സാമ്യതകൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കാര്യത്തിൽ ഒര് എന്തെങ്കിലുമിപ്പോൾ ഒരു കാര്യമിപ്പോൾ ആ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് ഞങ്ങൾ രണ്ട് പേരും ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അതിലൊരു മറ്റവും ഇല്ല കാരണം ഞ ഞങ്ങൾക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് എത്ര പ്രശ്നം ഉണ്ടാക്കിയിട്ടാണെങ്കിലും ഞങ്ങളത് വാങ്ങിക്കും അപ്പോൾ അത് ഞങ്ങളുടെ ഒരു സാമ്യതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വാശിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ട് പേർക്കും നല്ലൊരു ഇതു തന്നെയാണുള്ളത് പിന്നെ അവൾക്ക് മെയിനായിട്ട് വീട്ടിൽ ഇളയ കുട്ടിയായത് കൊണ്ട് കൂടുതൽ പരിഗണന കൊടുക്കുന്നത് കൊണ്ട് ഞാനും അതുപോലെ തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ അവൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചെറിയ കുട്ടിയാണ് അവൾക്കതിന് അതിൻ്റേതായ പക്വതയെ ഉള്ളൂ പിന്നേ ഞാൻ അത്യാവശ്യം പ്രായമായത് കൊണ്ട് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് മുൻപോട്ടു പോകുന്നു